യാത്രകൾ എന്നു പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിന് ഉന്മേഷവും ശരീരത്തിനു ഊർജ്ജവും പകരുവാനായിട്ട് ഏറ്റവും അത്യുത്തമമാണ് കേരളമെന്നതു ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ കേരളത്തിനകത്തു മാത്രമല്ല കേരളത്തിനു പുറത്തും യാത്രകൾ പോകുവാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ

പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള

കടലായും കായലായും മലയായും പുഴയായും വനങ്ങളായും അവയൊക്കെ വളരെ മനോഹരമായി തന്നെ ഇരിക്കുന്നു യാത്രകൾ എന്നും ആനന്ദകരമാണ് അത് ആരോടൊപ്പമായാലും ചില അവസരങ്ങളിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുക നമ്മുടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനാകും അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഒരുമിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുക വളരെ ആനന്ദകരമാണ് എന്നാൽ നാം സ്കൂളിൽ പഠിക്കുമ്പോഴാകട്ടെ നാം ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകാനായിരിക്കും അവരുമായിട്ടുള്ള മനോഹരമായ നിമിഷങ്ങൾ ഒരേ വൈബുള്ള ആളുകളുമായിട്ടുള്ള മറക്കാനാകാത്ത കുറെ നല്ല നിമിഷങ്ങൾ സന്തോഷിക്കും ലഭിക്കുവാനായിട്ട് ഓരോ യാത്രകളും സാധിക്കും ഓരോ യാത്രകളും മനോഹരമാകുന്നത് നമ്മൾ ഓരോ പ്രിയപ്പെട്ടവരോടും ഒപ്പം യാത്ര ചെയ്യുമ്പോഴാണ് തീർച്ചയായും അത് നമ്മുടെ കുടുംബമാകാം നമ്മുടെ സുഹൃത്തുക്കൾ ആകാം നമ്മുടെ ബന്ധുക്കൾ ആകാം ഞാൻ ഏറ്റും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ കുടുംബവും കുടുംബത്തോടൊപ്പമുള്ള യാത്രയും അതുപോലെതന്നെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രയുമാണ്